ഹലോ ഹലോ അതെ പറഞ്ഞോളൂ മാഡം

എന്താണ് പറ്റിയത് മാഡം ആ ഓക്കെ ഇന്ന് ഈവനിംഗ് ആയിരുന്നു ആ ഓക്കെ ഇപ്പോൾ വല്ലതും സാരമില്ല ഇപ്പോൾ ബാറ്ററീൻ്റെ അങ്ങനെ എന്തേലും ഒക്കെ ഇഷ്യൂ ആവാൻ ആണ് ചാൻസ് ഇല്ലേല് സ്പാർക്ക് പ്ലഗ്ഗോ അങ്ങനെ എന്തേലും ഇഷ്യൂ ആയിരിക്കും പെട്രോൾ ഉണ്ടോ വണ്ടിയില് എണ്ണ ഉള്ള ആണോ ഉണ്ട് അല്ലേ ഓക്കെ ഇത് ഇപ്പോൾ നമുക്ക് എന്താ കംപ്ലയിന്റെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല നമ്മൾ ഒന്ന് വന്ന് ചെക്ക് ചെയ്യണ്ടി വരും മാഡം എന്തേലും അർജൻറ്റ് ആണോ നമുക്ക് ഇപ്പോൾ ഒര് പെൻഡിംഗില് വർക്ക് ഉണ്ടായിരുന്നു തിരക്ക് ഉള്ള ആണോ ആ ആ ഓക്കെ എന്നാൽ ഞമ്മൾ ഇപ്പോൾ വരാം നമുക്ക് ഇപ്പോൾ റിക്വയർമെൻറ്റ് ആവശ്യം നമുക്ക് അവിടെ വന്നിട്ട് എന്താ കംപ്ലയിൻറ്റ് നോക്കീട്ട് നമുക്ക് ചെയ്യാം റിക്കവറി വാൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് ഇപ്പോൾ എന്താ കംപ്ലയിൻറ്റീന്ന് അറിയാണ്ട് നമ്മുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് വന്ന് നോക്കുന്നേന് പേയ്മെൻറ്റ് എക്സ്ട്രാ വേണ്ടി വരും കാരണം നമുക്ക് ഇവിടെ വർക്ക് ഷോപ്പിൽ കൊണ്ട് വരുന്നതും അവിടെ വന്ന് നോക്കുന്നേനും റേറ്റ് വ്യത്യാസം ഉണ്ടാവും വന്നാൽ ജസ്റ്റ് അത് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് പറയാം എങ്ങനെ ഇല്ല ജസ്റ്റ് നമുക്ക് വണ്ടി നന്നാക്കി കഴിഞ്ഞിട്ട് നിങ്ങള് പേയ്മെൻറ്റ് ചെയ്താൽ മതി റെഡി ആയി കഴിഞ്ഞിട്ട് കുഴപ്പം ഒന്നും ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി വേറെ ഇഷ്യൂ ഒന്നും ഇല്ല മാഡം ഞാൻ വന്ന് കഴിഞ്ഞിട്ട് കീ അങ്ങ് ഏല്പിച്ചിട്ട് മാഡം പോവാൻ ഉണ്ടെങ്കീ അർജൻറ്റ് ആണെങ്കിൽ പൊക്കോളൂ വണ്ടി നന്നാക്കി കഴിയുമ്പോൾ നമ്മള് വിളിക്കാം എന്നിട്ട് മാഡം വന്നിട്ട് കളക്ട് ചെയ്താൽ മതി അപ്പോൾ മാഡം കറക്റ്റ് ലൊക്കേഷന് അയക്ക് ഇത് നമുക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മക്ക് ഇന്ന് തന്നെ ചെയ്തു തരാൻ പറ്റും പിന്നെ നോക്കണം ആ ഓക്കെ ഇല്ല അത്ര ഒന്നും ഡിലേ ആവൂല്ല എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തരാൻ പറ്റും

ആ മാഡം എന്തായാലും വാട്ട്സ്ആപ്പിൽ ഇപ്പോൾ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ ഒന്ന് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്തിട്ട് ഞാൻ വന്ന് നോക്കിക്കോളാം ഓക്കെ മാഡം എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തോളൂ ഞാൻ ഇപ്പത്തന്നെ വരാം എന്തായാലും ആ ഓക്കെ താങ്ക്യൂ മാം